ആ എപ്പം ആ അപ്പം എനിക്കാണെങ്കിൽ അടുത്ത മാസം ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പം അതിന് വേണ്ടി എനിക്ക് രണ്ട് കിലോ ഒരു ബീഫ് വേണമായിരുന്നു രണ്ട് കിലോ ബീഫ് ഇരുപത്തിയെട്ടാം തീയതിയാണ് ഫംഗ്ഷൻ നടക്കുന്നത് നിങ്ങളുടെ അപ്പം എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഫ്രഷ് ആയിട്ടാണോ അതോ നിങ്ങൾ നേരത്തേ മുറിച്ച് ചിക്കൻ ഉണ്ട് ചിക്കൻ ഒക്കെ നിങ്ങൾ ആ സമയത്ത് തന്നെ മുറിച്ച് എടുക്കുന്നതാണോ അതോ നേരത്തേ വല്ലതും കൊണ്ടുവന്ന് വല്ലതും വെച്ചത് വല്ലതും ആണോ ആ നിങ് ആ നമ്പർ തരാം ഞാൻ ആ ഓക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് രണ്ട് കിലോ മതി പക്ഷേ അത് ഫ്രഷ് ആയിരിക്കണം കാരണം ഒരു ഫംഗ്ഷൻ നടക്കുമ്പം ഒരു ഇത് പോരായ്മ ഒന്നും വരാൻ പറ്റില്ല ബീഫും അല്ല ബീഫ് മതി നിങ്ങളുടെ ഈ കടയെ പറ്റി നല്ലൊരു അഭിപ്രായം കേട്ടു അതുകൊണ്ടാണ് അവിടെ നിന്ന് മേടിക്കുന്നത് അതുകൊണ്ട് നല്ലത് വേണം ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫ്രഷ് ആയിട്ടുള്ളത് വേണം തരാൻ വേണ്ടി ആ രണ്ട് കിലോ മതി പോത്ത് ഉണ്ടോ അവിടെ

ആ കൂടെ എല്ലായാലും കുഴപ്പമൊന്നും ഇല്ല പക്ഷേ ഫ്രഷ് ആയിരിക്കണം നിങ്ങളുടെ പ്രൊഡക്ട് ഞങ്ങൾക്ക് നല്ലതായിരിക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് മേടിക്കുന്നത് എന്തെങ്കിലും ഒരിത് വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരിത് വ എൻ എന്തെങ്കിലും ഒരിത് വന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ഒരു ഇതാവും അതുകൊണ്ട് നല്ലത് വേണം ഞങ്ങൾക്ക് തരാൻ വേണ്ടി ഇത് വരെ നിങ്ങളുടെ നല്ലത് കൊടുത്തത് ഇനിയും കൊടുക്കാതിരിക്കാം എന്ന് ഇല്ലല്ലോ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് മോശമായിക്കൂടെ മാം ര രണ്ട് കിലോ ആണ് വേണ്ടത് അത് നിങ്ങളുടെ ഇതുപോലെ ഇരിക്കും സേഫ്റ്റി എല്ലാം നോക്കിയിട്ട് നല്ല ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് കൊണ്ട് തരുന്നതെന്ന് നോക്കിയിട്ട് കാരണം ഫംഗ്ഷൻസ് കുളമാകാൻ പറ്റില്ല അതുകൊണ്ട് ഇരുപത്തെട്ടാം തീയതിയാണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പം നിങ്ങളെ പറ്റി കേട്ടതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടി സാധനം വേ ആ ഡെലിവറി ചെയ്താൽ മതി അഡ്രസ്സ് എന്തായാലും പറഞ്ഞുതരാം ആ അതെ ആ അപ് ആ ആ ഞാൻ അപ്പം ഗൂഗിൾ പേ ചെയ്താൽ മതിയോ ഗൂഗിൾ പേ ചെയ്താൽ മതിയോ ആ ഓക്കെ അപ്പോൾ നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ ഇത് പോലെ പോ എപ്പോഴാണോ പോത്ത് കിട്ടുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾ വിളിച്ചാൽ മതി ഫംഗ്ഷൻ ഫങ്ഷ് തലേ ദിവസം എന്തായാലും വേണം കാരണം ഫംഗ്ഷൻ നടക്കുന്ന രണ്ടുമൂന്ന് ദിവസം മുമ്പ് ആ രണ്ടുമൂന്ന് ദിവസം മുമ്പേ എന്തായാലും വേണം ഇപ്പോൾ ഫംഗ്ഷൻ നടക്കുന്നതിന് മുമ്പേ അതുകൊണ്ട് അതെന്തായാലും ഞാൻ വിളിച്ച് പറയാം അപ്പോൾ ഞങ്ങൾ പറയുന്ന ആ ഒരു സമയത്ത് എമൗണ്ട് ആയാലും ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം എത്രയാണ് വേണ്ടത് എന്നുള്ളത് അതിന് മുമ്പായാലും വേണം ഒരു ഉച്ച ഒക്കെ ആകുമ്പോൾ ഒരു ഒരു മണി ഒക്കെ ആകുമ്പോളെങ്കിലും വേണം

ആ നിങ്ങൾക്ക് എപ്പോഴാണോ നല്ല ഫ്രഷ് കിട്ടുന്നത് അപ്പോൾ എത്തിച്ചാൽ മതി ആ വാട്ട്സാപ്പ് ചെയ്തേക്കാം ഓക്കെ ശരി എന്നാൽ ആ